ഇത് ഞാനിവിടെ ഇന്നലെ വന്ന് വാങ്ങിയൊരു കുർത്തിയാണ് കുറേ നേരം തപ്പി തിരഞ്ഞ് അവസാനം ഞാൻ വാങ്ങിപ്പോയൊരു കുർത്തി ഞാൻ ഇന്നലെ ഇവിടെ മഞ്ഞ നിറത്തിലുള്ളൊരു കുർത്തിയാണ് ഇട്ടുനോക്കിയാണ് പക്ഷേ വീട്ടിൽ വന്ന് പൊളിച്ച് നോക്കിയപ്പോൾ വെള്ള കളർ പോരാത്തതിന് അതിന് നൂൽ വർക്ക് ചുവപ്പ് കളറും അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിറമൊക്കെ ആകെ മങ്ങിയിട്ടുണ്ട് പഴയത് പോലെ ഉണ്ട് ഇട്ട് നോക്കാൻ തന്നെ തോന്നുന്നില്ല ഞാൻ രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് തന്നാണന്നുണ്ടായിന് നിങ്ങൾ നല്ലൊരു സേവനം എനിക്ക് തരണമെന്ന് കുർത്തി മാറ്റി അടിച്ചുകൊണ്ട് എന്നെ പറ്റിക്കുകയാണോ നിങ്ങൾ ഇത്രയും വില കൊടുത്തിട്ട് വാങ്ങുമ്പോൾ നല്ല സാധനം തരുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം ആണ് നിങ്ങൾ ആൾക്കാരെ പറ്റിച്ച് നടക്കലല്ല നല്ല സാധനം വാങ്ങാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേവനം കൊണ്ടുതന്നെയായിരുന്നു പക്ഷേ ഇനി ഇങ്ങോട്ട് വരില്ല